പേരേല ഇടക്കിടക്ക് പച്ചക്ക് ചവച്ച് തിന്നുന്നത് പ്രമേഹം കുറക്കാൻ വളരെ നല്ലതാണ് പിന്നെ കറി വേപ്പില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ പ്രയോജനകരമാണ് പ്രമേഹം കുറക്കാൻ ഇപ്പം പ്രമേഹം ഉള്ളവർക്ക് പഴം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമാണ് അങ്ങനെ ഉള്ളവർക്ക് പച്ചത്തൊലിയുള്ള റോബസ്റ്റാ പഴം കഴിക്കുന്നത് നല്ലതാണ് നല്ലതാണ് പിന്നെ ഈ പ്രേമഹം കുറക്കാനേറ്റവും നല്ല മാർഗ്ഗമാണ് പാവയ്ക്കാ ജൂസ് പാവയ്ക്കാ മിക്സിക്കകത്തോ അല്ലെങ്കിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് രണ്ട് നേരം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഷുഗർ കുറക്കാൻ പിന്നെ പിൻ പിൻ പിന്നെ ഇൻസുലിൻ ചെടികളെന്നറിയപ്പെടുന്ന ചെടികൾ കഴി അതിൻ്റെ വെള്ളം നീര് കലക്കി കുടിക്കുന്നതും അതിൻ്റെ ഉപയോഗമൊക്കെ വളരെ നല്ലതാണ് പിന്നെ പിന്നെ ഈ ആപ്പിൾ ആപ്പിളിനൊക്കെ മധുരമുണ്ടെങ്കിലും പക്ഷെ അത് ഷുഗർ കുറക്കാൻ വളരെ പ്രയോജനകരമാണ് ഈ ആപ്പിളെന്നൊക്കെ പറയുന്നത് പിന്നെ ഈ മാദളനാരങ്ങ മാദളനാരങ്ങയൊക്കെ വളരെ നല്ലതാണ് മാദളനാരങ്ങക്ക് മധുരം ഉണ്ട് പക്ഷെ എന്നാലും അത് ഷുഗർ കുറക്കാൻ വളരെ പ്രയോജനകരമാണ് പിന്നെ ഉള്ള ആര്യവേപ്പില ആര്യവേപ്പിലയൊക്കെ അരച്ചിട്ട് അത് കഴിക്കുക വെള്ളം എല്ലാം അരച്ചിട്ട് ആര്യവേപ്പില നല്ലതു പോലെ അരച്ചിട്ട് ചമ്മന്തി പോലെയൊക്കെ അരച്ചിട്ട് അത് കഴിക്കുന്നതും ഷുഗർ കുറക്കാൻ വളരെ പ്രയോജനകരമാണീ ഈ പ്രമേഹം കുറക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് പിന്നെ കുറേ പച്ചയില ചെടികളൊക്കെയുണ്ട് ആ ചെടികളൊക്കെ ഇങ്ങനെ ആയുർവേദ കടകളിലും അവിടുന്നൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ മേടിച്ച് അതൊക്കെ കഴിക്കുന്നതൊക്കെ വളരെ പ്രയോജനകരമാണ് അതൊക്കെ വളരെ പ്രയോജനകരായിട്ടുള്ള കാര്യമാണ് പിന്നെ അത്രയേയുള്ളൂ